എൻ്റെ പ്രിയപ്പെട്ട ഒരു ശൈലി എന്ന് ഉദ്ദേശി പറയുമ്പോള് എനിക്കിങ്ങനെ വെറൈറ്റി വെറൈറ്റി എണ്ണ പലഹാരങ്ങൾ ഉണ്ടാക്കുക അതായത് പിള്ളേര് സ്കൂള് വിട്ടു വരുമ്പോഴത്തെക്കിന് അല്ലെങ്കില് എവിടെയേലും യാത്ര പോയിട്ട് ഒരു പോയിട്ട് വരുമ്പോഴത്തേന് അവർക്ക് പുതിയ പുതിയ എണ്ണ പലഹാരങ്ങള് അതായത് നമ്മുടെ ഇ എ എത്ര ഐറ്റംസ് കുറച്ചുളെള മൂന്ന് പിന്നെ ഇപ്പോള് മൈദയും എന്ന പഞ്ചസാരയും ഉപ്പും മാത്രം ചേർത്തും മുട്ട മുട്ടയും മൈ മൈദയും ഉപ്പും മാത്രവും അങ്ങനെ ചില ചെറിയ ചെറിയ ചെലവു ചുരുക്കിയുളള നെ എണ്ണ പലഹാരങ്ങളുണ്ടാക്കുക അതെന്റെയൊരു പ്രത്യേക ശൈലിയാണ് അത് എന്ത് കിട്ടിയാലും ചെറുപയര് കണ്ടാലെ അതെ അതുകൊണ്ട് ഉഴുന്ന് പിന്നെ ഇത് നമ്മുടെ സുഖിയൻ ഉണ്ടാക്കുക ഏത്തക്ക കിട്ടിയാല് ഏത്തക്കഅപ്പം ഉണ്ടാക്കുക അത് എന്തെങ്കിലും ഇല്ല ഒരു ഒരു സാധനം നമ്മുടെ കൈയ്യിലില്ലെങ്കില് നമ്മളതിന് പകരമായിട്ട് എന്തെങ്കിലും ചേർത്താണേലും അത് റെഡിയാക്കും ഇപ്പോള് മൈദ ചേർക്കേണ്ടിടത്ത് മൈദയ്ക്ക് പകരം മൈദ കയ്യിലില്ല എങ്കില് നമ്മളതിനുപകരം ഗോതമ്പ് പൊടിയോ തൽക്കാലം നമ്മുടെ കയ്യിലിരിക്കുന്ന കാരണം എങ്ങനെയായാലും ഇത് കഴിച്ചിട്ടുള്ളവര് നമ്മുടെ വീട്ടിലുള്ളവരാണേലും വന്ന ഗെസ്റ്റ് ആരേലും വന്നാലും പെട്ടെന്ന് രണ്ട് സവാളയൊക്കെ എടുത്ത് ഇച്ചിര മൈദയും എല്ലാം കൂടെ ചേർത്ത് ഒരു ഉള്ളിവട ഒണ്ടാക്ക അതൊരു ഒരു പ്രത്യേക ഒരു ഇതാണ് അത് അങ്ങനെയൊരു ഇതുള്ളതുകൊണ്ട് നിമിഷ നേരം കൊണ്ടൊക്കെ നമുക്കൊരു ഗെസ്റ്റിനെ ന്നെ കയ്യിലുള്ളത് കൊണ്ടൊക്കെ ന്നെ പെട്ടെന്ന് കടയില് പോകാതെ അല്ലേ വീട്ടിൽ ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്താണെങ്കിലും ഒക്കെ നമുക്കത് പിന്നെ നമുക്കൊരു അര് ഒരു ഒരു കുറു ഗുണമാണ് കാരണം അവർക്ക് തൃപ്തിയാവുന്ന പോലെ ഫ്രഷായിട്ട് കെമിക്കലൊന്നും ചേർക്കാതെ നമ്മള് കടയിന്ന് മേടിക്കുമ്പോള് അതിൻ്റെതായ എന്തെലുമൊക്കെ കെമിക്കലുകളും അല്ലെങ്കില് പഴകിയ സാധനങ്ങളുമൊക്കെ അല്ലെങ്കില് അത് അതെനിക്കൊരു ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് പിന്നെ പലഹാരം അത് എണ്ണയും കൊണ്ടുള്ളതാണെങ്കിലും അല്ലാതെ നമ്മള് ആവി പുഴുങ്ങിയാണെങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ പലഹാരങ്ങളോടുള്ള ഒരു ഇതാണ് പിന്നെ ഒരു ശൈല എന്നു പറയാനായിട്ട് ഞാനെ തയ്ക്കും ധാരാളം വെട്ടു കഷ്ണങ്ങൾ കൊണ്ട് അതായത് നമുക്ക് പുതിയ തുണി മേടിക്കാതെ തന്നെപോലും എനിക്ക് ചെറിയ ചെറിയ സാ പിള്ളേർക്കൊക്കെയുള്ള ഡ്രെസ്സുകള് അതൊന്ന് കണ്ടാല് മതി കാണുന്ന ഇതിൽ തന്നെ ഞാന് വെട്ടിത്തയച്ച് കൊച്ചിനെ ഇടീപ്പിച്ച് ഒന്ന് സംതൃപ്തയാകും അത് എൻ്റെ ഒരു ശൈലിയാണ് അത് ഒരു സാധനം കണ്ടുകഴിഞ്ഞാല് അത് ഞാൻ നിസ്സാര ഇതേ ഉള്ളൂ കാരണം നമ്മൾ ഉപയോഗിച്ച് ഇതാക്കിയ വലിയ പ പഴക്കം ചെല്ലാത്ത ഷാളുകളോ അതൊക്കെ വെട്ടിമുറിച്ചു കൊച്ചു പിള്ളാർക്ക് ഡ്രെസ്സ് തയ്ക്കുക അല്ലെങ്കില് നമ്മുടെ പിന്നെ പിന്നെ പഴയ പഴകിയ സാരി മുറിച്ച് കർട്ടനടിക്കുക അപ്പോള് തയ്യൽ എൻ്റെ ഒരു ഇതാണ് ഇതൊക്കെയാണ് എൻ്റെ എന്നാ വിശേഷാലുള്ള ശൈലികള്